ഹലോ ആ ആരാണു വിളിക്കുന്നത് അതേല്ലോ ആ ഓക്കെ അതെ മാം ആ അതെ അതെ അതെ അതെ നമ്മൾ മെയ്നായിട്ട് ഇലക്ട്രിക്കൽ വർക്കാണ് നമ്മള് ഇലക്ട്രീഷ്യനാണ് ഞാനേ

എവിടെ സ്ഥലമെവിടെയാണെന്നാണു പറഞ്ഞത് കട്ടപ്പനയോ ഓക്കെ എത്ര സ്ക്വയർ ഫീറ്റുണ്ടെന്നേ വീട് പുതിയ വീടാണോ അതോ നിലവിലുള്ള വീട് എന്താന്നാ പറഞ്ഞത് പുതിയ വീട് പണീയുകയാണ് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പോള് നമ്മുടെ വീട് ഏത് സ്റ്റേജിലാണ് ഇപ്പോള് മേഡം പണി തീരാറാ എന്ത് എന്തായി ഓ വാർക്ക വരെ എത്തിയല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഇനി നമുക്കേ ഇതിന്റെയകത്ത് വയറിങ് സാധനങ്ങളിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നതെന്നുപറഞ്ഞിട്ടുണ്ടെങ്കില് പല വിലയുടെ ഐറ്റം ഉണ്ടല്ലോ എല്ലാം വില കൂടിയതും കുറഞ്ഞതും കേബിള് എല്ലാം ഉൾപ്പടെ പക്ഷേ ഇപ്പോള് നമ്മളീ ചെയ്യുമ്പോള് അത്യാവിശ്യം ആ കൂടിയെന്നുള്ളതല്ല എല്ലാം നമ്മൾ ഏത് നല്ലൊരു ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡാണെങ്കിൽ അല്ലെങ്കില് പിന്നീട് നമ്മളിതെല്ലാം കൺസീൽഡായിട്ട് വീടിൻ്റെ അകത്തൂടെയെല്ലാം കൂടെ പോകുന്നോണ്ടേ പിന്നീടെന്തെങ്കിലുമൊരു പ്രശ്നം വന്നാല് ഇത് നമുക്ക് പട്ടായമൊക്കെ ഉള്ള സ്ഥലമല്ലേ അത് നമുക്ക് കണക്ഷനെടുത്തായിരുന്നോ കാര്യം കണക്ഷനൊക്കെ എടുത്തതാണോ നിങ്ങള് ആ ഹാ ആ അതുണ്ടല്ലേ ആ ഹാ ഓക്കെ ഓക്കെ അപ്പയിൻ്റെ കണക്ഷൻ കിടപ്പുണ്ട് ആ ഓക്കെ മൊത്തം അപ്പോള് എത്ര സ്ക്വെയർ ഫീറ്റാണെന്നാണു പറഞ്ഞത് മൂവായിരത്തിനു മുകളിലുണ്ട് അല്ലേ ആ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുണ്ട് ഓക്കെ അതിൻ്റെ ബെഡ്റൂം എത്രയാന്നെ വരുന്നേ അതിന്റെയകത്ത് അറ്റാച്ച്ഡാണോ ആ പിന്നെ അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഹാള് ആ ആ എത്ര എത്ര രണ്ട് നിലയാണോ അതോ ഒറ്റ നിലയോ എങ്ങനെയാണു വീട് ആ ഒറ്റ നിലയില്ത്തന്നെ അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ വരുന്നത് കിച്ചണ് വർക്കേരിയസാണോ ഇപ്പോള് കൂടുതലാൾക്കാരും എല്ലാം ഇപ്പോഴൊരു എൽ ഇ ഡീടെ കാലമാണല്ലോ ഇപ്പെല്ലാം എൽ ഇ ഡി ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് മ്മ് ആ ഒരു ഉണ്ട് അതുണ്ട് മറ്റെ നമ്മുടെ ഇതുവച്ച് ഒത്തിരിവരുന്നുണ്ട് പിന്നെ നമ്മള് സെൻസറെല്ലാം കൂടെ കൊടുക്കുകയാണെങ്കിലേ നമ്മളിപ്പോള് ആളില്ലാത്ത സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ റൂമിലൊക്കെയാണെങ്കിലും അങ്ങനെ കുറേ വൈദ്യുതി ലാഭിക്കാന് പറ്റും കുറേ ഗുണങ്ങളുണ്ട് മ്മ് ആ പിന്നെ നമ്മുടെ റേറ്റോക്കെ വരുന്നാല് അത് രണ്ട് രീതിയിലുണ്ട് അതെന്നാന്നുവച്ചാല് ചിലപ്പോള് ചില കസ്റ്റമേഴ്സ് അവര് സാധനങ്ങളെല്ലാം അവരെടുത്തു തരുന്ന കേസുമുണ്ട് ഫുള് എല്ലാം എടുത്ത് അവരെല്ലാം ഇത് നമ്മൾ ലേബറായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് ഇനി അതല്ലായെങ്കില് നമ്മൾതന്നെ നിങ്ങള് പറയുന്ന ഐറ്റമെല്ലാം പറഞ്ഞ് നമ്മള് തന്നെ എടുത്ത് നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് ഏതാണോ ആവശ്യം നോക്കി അതനുസരിച്ച് നമ്മള് ചെയ്യുന്ന കേസുകളൂണ്ട് അപ്പോള് അത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മള് നേരിട്ടൊന്ന് സംസാരിച്ച് സൈറ്റൊക്കെ ഒന്നു കണ്ട് നിങ്ങളുടെയൊരു താൽപര്യം നമുക്ക് രണ്ടു കൂട്ടർക്കും കുഴപ്പമില്ലാത്ത രീതിയില് നമ്മൾ അതു ചെയ്യുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നിങ്ങള്ക്ക് മനസിൽ ഏതേലും ബ്രാൻഡ് അങ്ങനെ വല്ലതും ഉണ്ടോ കൂടുതൽ ഫിലിപ്സൊക്കെയാണ് ഫിലിപ്സ് ലൂക്കര് അങ്ങനെയൊക്കെ ഉണ്ട് അതാവുമ്പോള് വാറണ്ടി കൂടുതലുണ്ട് വർഷം കൂടുതലുണ്ട് കേബിളൊക്കെയാണെങ്കില് ആ ഗുഡ് അല്ലെങ്കില് എന്നാന്നുവച്ചാല് നമ്മളീ വീടിൻ്റെ ഒത്തിരി മുകളില് അവിടിവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെയതു മാറ്റണമെന്നു പറഞ്ഞാല് വലിയ പാടാണ് എന്തേലും കംപ്ലെയിൻറ്റായി അടുത്ത പിറ്റേ ദിവസമൊക്കെ പോയാലേ അങ്ങനെ ഇപ്പോള് പ്രശ്നമൊന്നുമില്ല ഒരു ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ദിവസമൊന്നു കാണാം മ്മ് അപ്പോള് ഞാനൊന്നു വിളിച്ചേക്കാം ആ ലൊക്കേഷനിട്ടേര് ആ ശരി ശരി ഓക്കെ